പതിനഞ്ച് മൂന്ന് രണ്ടായിരം പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എട്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇരുവത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുവത്തി രണ്ട്